ഉത്സവങ്ങൾ അഥവാ ആഘോഷങ്ങൾ എന്നു പറയുമ്പോൾ തന്നെ മനസിലേക്ക് ഓടി വരുന്നത് കുറേ രുചിയേറിയ ഭക്ഷണത്തിൻ്റെ സ്വാദും മണവും അതിൻ്റെ എല്ലാവരും കൂടെ അത് കഴിക്കുന്നതും എല്ലാമാണ് എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഭക്ഷണം തന്നെയാണ് അതിൻ്റെ മെയിൻ ഘടകം തന്നെ ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ചു വളർന്നതു കൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഒരു കുറവും ഇല്ലാണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം ഓണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടേയും മനസിലേക്ക് വരുന്നതാണ് സദ്യയും പായസവും സദ്യ എന്ന് പറയുമ്പോൾ കുറേ തരം കറികളും എല്ലാ ശർക്കര വരട്ടി കായ വറുത്തത് പഴം എല്ലാം വച്ച് കുറേ കറികളും സാമ്പാറും ഇഞ്ചിക്കറിയും എല്ലാം കൂട്ടി സദ്യയും പിന്നെ പായസം എന്ന് പറയുമ്പോൾ പലതരം പായസങ്ങളുണ്ട് പാലട സേമിയ അങ്ങനെ പലതരം പായസങ്ങളും ഇതാണ് ഓണത്തിന് ഓണം എന്ന് പറയുമ്പം എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് തന്നെ സദ്യയായിരിക്കും അതുകൊണ്ടു തന്നെ തന്നെ എല്ലാവർക്കും ഓണവും സദ്യയുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പറയുന്നത് വിഷു എന്ന് പറയുമ്പോൾ വിഷു എന്ന് പറയുമ്പോൾ വിഷുന് നമ്മൾ കൂടുതലായിട്ടും പായസങ്ങളുണ്ടാക്കും ഉണ്ണിയപ്പം അടകൾ പിന്നെ വിഷു കട്ടയുണ്ടാക്കും വിഷുവിൻ്റെ അന്ന് വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് വിഷുക്കട്ട ഉണ്ടാക്കും അരി കൊണ്ടുള്ള ഒരു കേക്ക് പോലെ സംഭവമാണ് ഈ വിഷുക്കട്ട പിന്നെ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതു കൊണ്ടു തന്നെ എല്ലാ കൊല്ലവും ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം ആഘോഷിക്കാറുണ്ട് അപ്പോൾ ക്രിസ്മസിന് പ്രധാനായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്മസിനു വേണ്ടി കാത്തിരിക്കുന്നത് തന്നെ ഫ്രൂട്ട് കേക്ക് വയിൻ അങ്ങനത്തതൊക്കെ ക്രിസ്മസിൻ്റെ ടൈമിൽ മാത്രമാായിരിക്കും നമ്മൾ അതൊക്കെ കഴിക്കുന്നതും ഉണ്ടാകുന്നതുമൊക്കെ പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി നമ്മൾ പള്ളിയിൽ പോയി നോമ്പ് നോമ്പെടുക്കുമല്ലോ ഇരുപത്തി അഞ്ചു ദിവസം ക്രിസ്മസിന് വേണ്ടി അത് നോമ്പ് വീടാൻ വേണ്ടിയിട്ട് അപ്പോം സ്റ്റു കറീയൊക്കെ കഴിക്കാറുണ്ട് പള്ളിയിൽ പോയിട്ട് പിന്നെ ഈസ്റ്ററിനായാലും തന്നെ ഇരുപത്തിയഞ്ച് ദിവസം അല്ല ഈസ്റ്ററിന് അൻപതു ദിവസം നോമ്പ് എടുത്തിട്ട് പിന്നെ അന്ന് രാത്രി പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ തന്നെ വട്ടയപ്പവും ഇറച്ചിക്കറിയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഭക്ഷണം തന്നെയാണ്